ഇപ്പോൾ ട്രെക്കിങ്ങിനൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ മുമ്പ് ഉള്ളത്തിനേക്കാട്ടിലും കൂടുതൽ മാലിന്യങ്ങൾ നമ്മൾ കണ്ടു വരുന്നുണ്ട് ഇപ്പം കൂടുതലായിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ അത് പോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കവറ് അങ്ങനത്തെ ഒരുപാട് ഫുഡ് ഐറ്റംസ്സിൻ്റെ മാലിന്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പഴത്തൊലി അപ ജൈവ മാലിന്യങ്ങളാണെങ്കിൽ അത് ഭൂമിയിലേക്ക് ദ്രവിച്ച് പോവും പക്ഷെ പ്ലാസ്റ്റിക്കാണെങ്കിൽ അതങ്ങനെ മണ്ണിനോട് ഇഴുകി ചേരില്ല അപ്പം അത് അവിടത്തെ മൃഗങ്ങൾകൊക്കെ ഭയങ്കര ദോഷമാണ് അപ്പം ഞാൻ ഒരുപാട് ഇപ്പം വയനാടൊക്കെ ട്രെക്കിങ്ങിന് പോയപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒത്തിരി ഇതു പോലുള്ള മാലിന്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു എങ്ങനെയാണ് പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രെക്കിങ്ങിന് ഇടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഒന്നുകിൽ നമ്മളുടെ കൈയ്യിൽ തന്നെ പിടിക്കുക അല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോവുമ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെ ഉള്ള ഫുഡ് ഐറ്റംസ്സ് ഒന്നും അവിടെ അനുവദിക്കാതിരിക്കുക എന്തായാലും നമ്മൾക്ക് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ വെള്ളമൊക്കെ ഉറപ്പായിട്ടും കുടിക്കേണ്ടി വരും അങ്ങനെ വെള്ളം കുടിക്കുക ആണെങ്കിൽ തന്നെ അതിൻ്റെ ബോട്ടിൽസ്സ് കാര്യങ്ങളൊന്നും അവിടെ ഇവിടങ്ങളിലായിട്ട് ഇടാതെ അത് നമ്മൾ ഒരു ശരിയായ രീതിയിൽ നമ്മൾ അത് സംസ്കരിക്കുക